ഗോത്ര വർഗ്ഗക്കാർ അവരുടെ കലയും കരകൗശല നൈപുണ്യവും കൊണ്ട് ദൈവത്തിന്റെ വരദാനം ആക്കിയ നാടാണ് വയനാട് എന്നു പറയുന്നത് ഉത്സവങ്ങളും ഐതിഹ്യങ്ങളും ആചാരങ്ങളും ഒക്കെ ഉള്ളൊരു നാടാണ് വയനാട് എന്നു പറയുന്നത് കലാവസ്തുക്കൾ സൃഷ്ടിക്കുന്നുള്ള സൃഷ്ടിക്കാനുള്ളതിൽ വാസ്തവത്തിൽ അവരുടെ കഴിവുകൾ ഉപജീവനമാർഗ്ഗം നേടാനുള്ള ഒരു മാർഗ്ഗമെന്നാണെന്നും അവർ വിശ്വസിക്കുന്നുണ്ട് നൃത്ത്യങ്ങളും അന്ധവിശ്വാസങ്ങളും പാട്ടുകളും സംഗീതങ്ങളും ഒക്കെ വായനാട്ടിൽ ഉള്ളതാണ് നൃത്ത്യങ്ങൾ പറയുമ്പോൾ നാടോടി നൃത്തവും അതുപോലെതന്നെ വയനാട് ജില്ലയിലെ ആദിവാസി സമൂഹങ്ങളുടെ പ്രധാന കലാരൂപങ്ങളായിട്ടുള്ള വട്ടക്കളി ഗാഥിക കോൽക്കളി കൂടിയാട്ടം നെല്ലുകൂത്ത്പാട്ട് കുറുത്തിനാടകം തുടങ്ങിയവയാണ് കുറുത്തിനാടകം പണിയ സമുദായത്തിന്റെ പരമ്പരാഗത കലാരൂപമാണ് ഇന്നത്തെ തലമുറയ്ക്ക് ഈ കലാരൂപത്തെക്കുറിച്ച് അറിയില്ല പിന്നെ ഇടുക്കി ജില്ലയിലൊക്കെ പറയുന്നതുപോലതന്നെ അവിടെ ഉള്ള ആൾക്കാർ എന്നു പറയുമ്പോൾ മുള വച്ച് കരകൗശല വിദ്യകൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടും വരുന്നത് നമ്മുടെ വയനാട്ടിലും മുളകൾ യൂസ് മുളകൾ ഉപയോഗിച്ച് കരകൗശല സാധനങ്ങൾ ഉണ്ടാക്കുന്നവർ ഉണ്ട്